പുസ്തകങ്ങൾക്ക് പുറമേ നമ്മൾ പൊതുവേ മാസികകൾ വായിക്കുന്നുണ്ട് ബ്ലോഗുകൾ വായിക്കുന്നുണ്ട് അതുപോലെതന്നെ പത്രങ്ങൾ വായിക്കുന്നുണ്ട് മാസികകളായി പ്രധാനമായിട്ടും നമ്മൾ വീട് മനോരമയുടെ വീട് എന്ന മാസിക വായിക്കുന്നുണ്ട് അത് വീടുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നമുക്ക് സഹായിക്കുന്നു ബ്ലോഗുകളാവട്ടെ നമ്മൾ നമ്മുടെ യാത്ര ബ്ലോഗുകൾ ഓരോ പ്രദേശവും അതിൻ്റെ വ്യത്യസ്ഥമായ കൾച്ചറൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാംസ്ക്കാരിക പൈതൃകവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെതന്നെ പത്രങ്ങളാണെങ്കിൽ നമുക്ക് വിവിധങ്ങളായ വാർത്തകൾ ഓരോ ദിവസത്തെയും വിവിധ വാർത്തകൾ നമുക്ക് അറിയുന്നതിന് സഹായിക്കാറുണ്ട് അപ്പോൾ അതും നമ്മൾ ദിവസേന വായിക്കുന്നുണ്ട്